ഇപ്പോൾ സ്റ്റാമ്പുകള് നാണയങ്ങള് ഇതൊക്കെ ശേഖരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു പാഷൻ അതും പിന്നെ നമുക്ക് ഇങ്ങനത്തെ സ്റ്റാമ്പുകൾ ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഭാവിയിൽ ആൾക്കാർക്കും ഇപ്പത്തെ തലമുറക്കൊന്നും ഇങ്ങനത്തെ സ്റ്റാമ്പുകൾ ഒന്നും കണ്ടിട്ട് പോലും ഉണ്ടാകില്ല അപ്പം അവർക്കത് കാണിച്ച് കൊടുക്കാനും അവരുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയാനും അവരുടെ വിദ്യാഭ്യാസം ഇങ്ങനയൊക്കെ വേണം അതായത് ഇങ്ങനെ നിങ്ങളും ചെയ്യണം എന്നൊക്കെ വേണമെങ്കിൽ കാണിച്ച് കൊടുക്കാൻ പാകത്തിനൊക്കെയാണ് ഞാൻ സ്റ്റാമ്പ് കളക്ട് ചെയ്തേക്കുന്നത് ഇപ്പം എൻ്റെ മക്കളാണെങ്കിൽ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്ന വ്യക്തികളാണ് അപ്പോൾ അവർക്കും ഇത് ഒരു പ്രചോദനമായിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്തത് ഇപ്പോൾ ഇങ്ങനത്തെ സ്റ്റാമ്പ് കളക്ഷൻ നാണയം അങ്ങനത്തെ ഇപ്പോൾ വേറെ ആരുടെ അടുത്തും ഇല്ലാത്ത നാണയങ്ങൾ ഒക്കെ ചിലപ്പോൾ എൻ്റെ കൈയ്യിൽ ഉണ്ടാകാം എൻ്റെ അടുത്ത് ഇല്ലാത്ത നാണയങ്ങളൊക്കെ വേറെ ആരുടെയടുത്തെങ്കിലും ഉണ്ടാകാം അപ്പോൾ അതൊക്കെ ഞാൻ പോയിട്ട് കാണാറും എന്തെങ്കിലും ഇങ്ങനത്തെ സ്റ്റാമ്പ് കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പോയി കാണാറൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും ഒരു താല്പര്യമുള്ള ഒരു കാര്യമാണ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിദ്യാഭ്യാസം അത് മെയിനായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയുമ്പോൾ വിദ്യാഭ്യാസം നന്നായിട്ട് അവർക്ക് ഉണ്ടാവുകയും ചെയ്യും